ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിക്ക് വേണ്ടി അതായത് മുംതാസിന് വേണ്ടി അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു പ്രണയ സൗധം എന്ന് വച്ചാൽ താജ്മഹല് അത് ചക്ര ഷാജഹാൻ എന്ന് വച്ചാൽ മെയിനായിട്ടും ഡൽഹി ഭരിച്ചിരുന്നൊരു ചക്രവർത്തിയായിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ താജ്മഹല് പോയി കണ്ടു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയ സൗധം പോലെ നല്ല മനോഹരമായിട്ടാണത് നിർമ്മിച്ച് വെച്ചേക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്ത് മാത്രം മീൻസ് അതുപോലെ നമ്മളെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏഴ് അത്ഭുതങ്ങളിൽ അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ആകർഷകമായ ഒരു ഘടകം തന്നെയാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പല രാജക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹലാണ് എനിക്ക് ഏറ്റവും ഒരു ആകർഷകമായ ഒരു ഘടകമായിട്ട് തോന്നിയത് എല്ലാ ഒരിക്കലെങ്കിലും അതുപോയി കാണണമെന്നുണ്ടായിരുന്നു അത്രമാത്രം മനോഹരമായിട്ടാണത് ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത്